ഇന്ത്യയിൽ ഒരുപാട് നൃത്തരൂപങ്ങൾ ഉണ്ട് അവയിൽ ചിലത് അവ ക്ലാസ്സിക്കൽ ക്ലാസിക്കൽ നൃത്തങ്ങൾ അഥവാ വെസ്റ്റേൺ നൃത്തങ്ങൾ എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള തരത്തിലൊക്കെ ഉണ്ട് ക്ലാസ്സിക്കൽ നൃത്തരൂപങ്ങളെ മെയിൻ ആയിട്ട് ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ആണ് ഭരതനാട്യം കഥകളി ഒഡീസി കുച്ചിപ്പുടി മണിപ്പൂരി മോഹിനിയാട്ടം കഥക്ക് സത്രിയ എന്നിവയൊക്കെ ക്ലാസ്സിക്കൽ നൃത്തരൂപങ്ങൾ ആണ് ഈ നൃത്തരൂപങ്ങളൊക്കെ അതുപോലെ നൃത്തശൈലികൾ അത് ക്ലാസിക്കൽ കൈ കൊണ്ടും മുദ്രകൾ പതിപ്പിച്ചും ഓരോ മുദ്രകളും അതുപോലെ കണ്ണുകൊണ്ടുള്ള ചേഷ്ടകളും അതൊക്കെ ഈ ക്ലാസിക്കൽ നൃത്തശൈലികളിൽ നൃത്തരൂപങ്ങളിൽ ഉൾപ്പെടുന്ന ശൈലികൾ ആണ് അതുപോലെതന്നെ സ്കൂളുകളിലെ കലോത്സവത്തിന് ഒക്കെയാണ് നമുക്ക് ഈ നൃത്തരൂപങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അതുപോലെ ടിവിയിലും അതുപോലെ മാധ്യമ മാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയിലൊക്കെ നമുക്ക് ഈ നൃത്തരൂപങ്ങൾ ഇപ്പോൾ നമുക്ക് അറിയാത്തത് പോലും നമുക്ക് ഇപ്പോൾ ഒരു യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്കത് കിട്ടുമല്ലോ ഇപ്പോൾ എല്ലാം അപ്ഡേറ്റഡ് ആണല്ലോ നമുക്ക് നമ്മുടെ കൈ കൈത്തുമ്പിൽ കൊണ്ട് എല്ലാം നമുക്ക് അറിയുന്നൊരു കാലം തന്നെയാണല്ലോ ഇത് അതുപോലെതന്നെ നൃത്ത നർത്തകർ എന്ന് പറയുമ്പോൾ അല്ല നൃത്തശൈലികൾ എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ അല്ല വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഫ്ലെമിംഗോ അതുപോലെ സിനിമാറ്റിക് ഡാൻസ് അതൊക്കെ വെസ്റ്റേൺ ടൈപ്പ് ഡാൻസേഴ്സ് ഉണ്ട് അതുപോലെ മതപരമായിട്ടുള്ള നൃത്തരൂപങ്ങളാണ് അല്ലെങ്കിൽ സംഘനൃത്തങ്ങളാണ് അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കളിക്കുന്ന നൃത്തരൂപങ്ങൾ അവയൊക്കെയാണ് ഒപ്പന ഒപ്പന ദഫ്മുട്ട് വട്ടപ്പാട്ട് അതുപോലെ ക്രിസ്ത്യൻസിൻ്റെ ഈ മറ്റേ ക്രിസ്ത്യൻസിൻ്റെ ഓരോ ടൈപ്പ് ഡാൻസ് എന്നുപറയുമ്പോൾ തിരുവാതിര അല്ല തിരുവാതിര മറ്റേ ഓണത്തിനും അതുപോലെ ഹിന്ദൂസിൻ്റെ ഒരു കലാരൂപമാണ് തിരുവാതിര ഓണത്തിനൊക്കെ കളിക്കുന്ന തിരുവാതിര അതുപോലെ മാർഗംകളി ക്രിസ്ത്യൻസിൻ്റെ ഒരു നൃത്തരൂപമാണ് മാർഗംകളി ഇത് ഒരു ഡിസംബർ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കലോത്സവത്തിനൊക്കെ മാർഗംകളി ഒക്കെ നമുക്ക് കാണാം ഇതുപോലെ നൃത്ത ഇതുപോലുള്ള ശൈലികളൊക്കെ നൃത്തങ്ങളിൽ നമുക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണാം അതുപോലെത്തന്നെ നർത്തകർ എന്ന് പറയുമ്പോൾ ശോഭന അതുപോലെ ശോഭനയെപോലുള്ള ഓരോ ആൾക്കാർ ഉണ്ട് അതുപോലെ ടിവിയിലൊക്കെ ഒരുപാട് എന്നാലും അധികം വിവരം അതിനെക്കുറിച്ച് നർത്തകരെ അതു ടിവിയിൽ കാണുന്ന നർത്തകരെയല്ലാതെ മറ്റുള്ള അങ്ങനെ അറിവില്ല ഇന്ത്യയിൽ ഒരു ഹിന്ദി ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന ഒരു നല്ല നർത്തകിയാണ് നോറ ഫത്തേഹി അതുപോലെ ഓരോ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരുപാട് നർത്തകരുണ്ട് പക്ഷെ പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല എങ്കിൽപ്പോലും ഒരുപാട് നർത്തകരെ അറിയാം